ആ ഹലോ മ് ആ അതേ അതേ ഇവിടെ പൊറോട്ട ഉണ്ട് പൊറോട്ട ബീഫ് ഉണ്ട് പിന്നേ അപ്പം ഉണ്ട് പിന്നേ ദോശ ഉണ്ട് ചമ്മന്തി ഉണ്ട് പിന്നെ ഏറ്റവും ചെലവാവുന്നത് പൊറോട്ടയാണ് ആ കറി ബീഫ് ആ അത് ഒത്തിരി പേര് വരുന്നതാണ് എല്ലാവർക്കും ഇഷ്ട്ടപ്പെട്ടതൊകെയാണ് അപ്പത്തോടൊക്കെ വലിയ താൽപ്പര്യം ഇല്ല എന്നായി മ് ആ അയ്യോ ഇവിടെയാണ് ഇവിടെയാണ് അതു കാരണം മിക്കവാറും ആൾക്കാർ ഇവിടെയാണ് വരുന്നത് ആ ബിരിയാണി നല്ലതാണ് ബിരിയാണി പാഴ്സലാക്കി കൊണ്ടു പോകുന്നുണ്ട് പൈസ മിനിമം മാത്രമേയുള്ളൂ മുന്നൂറ്റി അമ്പത്

ആ അസ്സൽ ഏ ഇത് നല്ല സാധനമാണ് അതുകൊണ്ടാണ് പൈസ അത് അനുസരിച്ചു നമ്മൾ റേറ്റങ്ങ് കൂട്ടണ്ടായൊ ഉണ്ട് ഉണ്ട് മുട്ട ഉണ്ട് ചിക്കൻ ഉണ്ട് അതൊക്കെ ഉണ്ട് നല്ല നല്ലതാണ് പപ്പടവും ഉണ്ട്

മറ്റുള്ള ഇടത്ത് നമ്മൾക്ക് അതിനെ പറ്റി അത്രയും ആരാ ഇപ്പം അന്വേഷിക്കുന്നത് വേറേ ചോറ് വേണ്ടുന്നവർക്ക് ചോറ് ഉണ്ട് അതും ഉണ്ട് ആ ഉണ്ട് ഉണ്ട് ഉണ്ട് പായസമുണ്ട് എന്നാ വേണം അതെല്ലാം ഉണ്ട് ആ റെഡിയായി വന്നാൽ മതി അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ തിരക്കാണ് ഇവിടെ മ് മ് രാത്രിയിലും ഉണ്ട് തിരക്ക് മ് ആ ഓ പത്തു മണി വരെയേ ഉള്ളൂ മ് പതിനായിരം ആ നല്ല കച്ചവടാണ് പാഴ്സെലും കൊടുക്കും ആവശ്യവുള്ളവർക്ക് നാനൂറ്

ബിസിനെസ്സൊക്കെ ലാഭത്തിൽ പോവണ്ടേ

എന്താണ് വേണ്ടത് ആ ശരി ഓക്കേ എത്ര എണ്ണം വേണം ആ മൂവായിരാണോ കൃത്യം പറ

റേറ്റ് ആ അത് തന്നെ അത് തന്നെയാണ് പറഞ്ഞത് കുറക്കും എന്ന് കൂടുതൽ കുറക്കാൻ പറ്റുകയില്ലല്ലോ ചോറു വേണം ഉണ്ട് ആ പിന്നെ കപ്പ ബിരിയാണി ഉണ്ട് ആ ജ്യൂസ് ഉണ്ട് മാങ്കായ് ജ്യൂസ് ഉണ്ട് ആപ്പിൾ ജ്യൂസ് ഉണ്ട് പിന്നേ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് പിന്നേ തക്കാളി അല്ല ആ മുന്തിരി ജ്യൂസ് ഉണ്ട് എന്നാ വേണമെങ്കിലും ഉണ്ട് എല്ലാ സൈസും ഉണ്ട് അമ്പത് എല്ലാറ്റിനും അമ്പത്

ആ ശരി